എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് അപ്പം കുട്ടികൾക്ക് വേണ്ടിട്ട് ഉടുപ്പ് തയ്ക്കണമെന്നും എനിക്ക് ചുരിദാറ് തയ്ക്കണമെന്നും വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പക്ഷേ തോന്നിയിരുന്നില്ല എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യം ആണെന്ന് പക്ഷേ ഇവിടെ പള്ളീൽ ജാസിൻ്റെ കീഴിൽ പഠിപ്പിക്കാൻ ആൾക്കാർ വരുന്നൂന്ന് മഠത്തിലും ഒക്കെ ആൾക്കാർ പഠിപ്പിക്കാൻ വരുന്നൂന്നൊക്കെ കേട്ടപ്പോൾ ഒന്ന് പഠിക്കണമെണ് ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ പഠിക്കാൻ പോയി പക്ഷേ ആദ്യമൊക്കെ ഇച്ചിരി ടഫായിട്ട് തോന്നിയെങ്കിലും പക്ഷേ പെട്ടന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടീട്ട് തയ്ക്കണമല്ലോ എന്നുള്ള താല്പര്യം കൊണ്ടും പിന്നെ ചുരിദാറ് പുറത്ത് തയ്ക്കുമ്പോഴുള്ള അതിൻ്റെ റേറ്റിൻ്റെ വ്യത്യാസം കൊണ്ടും ഒക്കെ തന്നെ തയ്ക്കുന്ന ആണ് നല്ലതെന്ന് തോന്നി പിന്നെ എനിക്ക് തന്നെ തയ്ക്കാൻ വന്നപ്പോൾ തുടങ്ങി കഴിഞ്ഞപ്പം തന്നെ ഒത്തിരി ഇൻട്രസ്റ്റായി നമ്മളെ കൊണ്ട് തയ്ക്കാൻ പറ്റുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷോം കൂടെ ഉണ്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം അതിൻ്റെയൊക്കെ പേരിലാണ് കൂടുതലും തയ്ക്കാൻ തുടങ്ങിയത് പിന്നെ പ്രായം കൂടി കൂടി വരുന്നതനുസരിച്ച് കാലിന് വേദന നടുവിന് വേദന ഒക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഇടയ്ക്കൊക്കെ മാത്രമേ തയ്ക്കാറുള്ളു പിന്നെ എപ്പോഴും ഉള്ള തയ്യലില്ലാത്തത് കാരണം മിഷനും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത്കൊണ്ട് അങ്ങനെ വലുതായിട്ട് തയ്യൽ തയ്ക്കുന്നില്ല എങ്കിലും താല്പര്യം ഉണ്ട് കുട്ടികളെപ്പോഴും നിർബന്ധിക്കും എന്തെങ്കിലും ഒക്കെ തയ്ച്ച് കൊടുക്കണമെന്ന് അതിൻ്റെ ഒക്കെ പേരിൽ എന്തെങ്കിലും ഒക്കെ തയ്ക്കാറുണ്ട് എനിക്കും പറ്റുമ്പോഴൊക്കെ ചുരിദാറുകളൊക്കെ തയ്ക്കും മറന്ന് പോവാതിരിക്കാൻ വേണ്ടിട്ടും ഒക്കെ ആയിട്ട് ചുരിദാറുകളൊക്കെ തയ്ക്കും